ഇന്നത്തെ കേരളസമൂഹത്തിൽ ഒട്ടുമിക്കപേരും വളർത്തുന്നത് കന്നുകാലികളെയും കോഴികളെയുമാണ് കാരണം കന്നുകാലികളിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായി കന്നുകാലി പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് അവർ അടുത്തുള്ള മില്മകളിൽ പോയി വിറ്റ് അവർക്കാവശ്യമുള്ള കാശുകൾ നേടുന്നവരാണ് കോഴിയിൽ നിന്ന് പലരും അവരുടെ കോഴിമുട്ട വിതരണം ചെയ്ത് അവരുടേതായ പണം നേടുന്നുമുണ്ട് ഈ രണ്ടുപേരും ഈ രണ്ടാൾക്കാരും വിഭാഗങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ അധികമായി കാണുന്ന രീതി ഇതിൽ മരച്ചീനിയും മഞ്ഞളും എല്ലാം തെങ്ങ് എല്ലാം ഒരു ചെയ്യുന്ന തരത്തിൽ ഉള്ളതാണ് എന്നാലും കോഴിയും കന്നുകാലിയും തെങ്ങും തെങ്ങും കോഴിയും കന്നുകാലികളുമാണ് ഇവിടെ സുലഭമായി കാണാൻ പറ്റുന്ന കൃഷിരീതികളിൽ ഒന്ന് തെങ്ങ് എന്നുപറയുമ്പോൾ ഒരുപാട് ഏക്കറോളം തെങ്ങ് കൃഷി നമുക്കു ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കോഴി ഫാം കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ഫാം അവർ അതിൽ നിന്ന് അവരുടേതായ ഏണിങ്സ് കാര്യമായി ഉണ്ടാക്കാൻ സാധിക്കുന്നുവെന്നത് അവരുടെ ഒരു ആനുകൂല്യങ്ങളാണ് ഇവർക്കു വേണ്ടി ഇന്നത്തെ ഗവണ്മെന്റ് ഇവിടെ ആനുകൂല്യങ്ങൾ പലതും നൽകുന്നുണ്ട് അവർക്ക് വേണ്ടി ഇന്ന് ലൈക്ക് ഈ ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ കന്നുകാലികളെ കൊടുക്കുന്നതും കോഴികളെ കൊടുക്കുന്നതും ആയ പല ആനുകൂല്യങ്ങളും ഇവർക്കു തീറ്റക്കുവേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ഇന്നത്തെ ഗവണ്മെന്റ് ആനുകൂല്യങ്ങ ആനുകൂല്യങ്ങളാൽ ഈ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ കർഷകരും ഇതിൽ സന്തുഷ്ടരാണ് എന്നാൽ പായ്ക്കറ്റ് പാലിന്റെ കടന്നു വരവോടെ കന്നുകാലിവളർത്തലുകളിൽ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് കോഴിവളർത്തൽ ആണെങ്കിൽ മുട്ട പലതരത്തിലുള്ള ഇമ്പോർട്ട് ചെയ്തതും കയറ്റി അയയ്ക്കുന്നതും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് മുട്ടകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ്